ഹലോ ആ നീ എവിടേ ഉള്ളത് ആ ഇല്ലാ ഞാൻ നിൻറ്റെ വീടിനേ പറ്റി അറിഞ്ഞിട്ട് വിളിക്കുകയായിരുന്നു എന്തൊക്കയോ ട്രെഡിഷണൽ ഹൗസോ അങ്ങനത്തെ എന്തൊക്കയോ കാര്യങ്ങൾ പറയണത് കേട്ടല്ലോ ആ ഓക്കേ ആ ഹാ ഹാ എങ്ങനേ അത് ഓൾഡ് ടൈപ്പ് ഈ വുഡൊക്കേ യൂസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ടൈപ്പാണോ

ആ ഓക്കേ അപ്പോൾ നീ എങ്ങനാണ് മറ്റേ ഇതൊക്കേ റെൻറ്റിന് കൊടുക്കുന്നത് അങ്ങനേ എന്തേലും പരിപാടിയുണ്ടോ കൊടുക്കുന്നുണ്ടല്ലേ അപ്പോൾ എങ്ങനേ നിങ്ങൾ ചാർജ് ചെയ്യുന്നതെങ്ങനെയാണ് പെർ ഡേ എങ്ങനേ റൂമിനാ പെർ ഒരു റൂമിന് ആ ഓക്കേ സ്റ്റേയ്ക്ക് മാത്രമെ നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ ഫുഡ് കാര്യങ്ങളൊക്കേ നിങ്ങൾ അവിടെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അതോ പുറത്തുന്ന് അവർ കഴിക്കാണോ ചെയുക കൊടുക്കുന്നുണ്ട് അതിന് അഡീഷണൽ ചാർജ് വരുമോ പുറത്തുന്ന് കഴിച്ചോട്ടേന്നാ ആ ഹാ ആ അപ്പോൾ നിനക്കവിടേ എങ്ങനേ ഇതുകൊണ്ട് വല്ല ലാഭമോ കാര്യങ്ങളൊക്കെയുണ്ടോ നോക്കീട്ട് അല്ലാ അപ്പോൾ നീ ഇവിടേ മാത്രമേ ചെയ്യുന്നുള്ളോ അതോ പുറത്തേക്കും ചെയ്യുന്നുണ്ടോ മീൻസ് നിൻ്റെ വീട് മാത്രമേയുള്ളോ അതോ അതിനോട് ചേർന്ന് ഇതുപോലേ തന്നേ വേറേം ഇതാക്കീട്ടുണ്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഇത് വലുതാക്കാനാ അതു എങ്ങനാ ഇങ്ങനേ തന്നേ പഴയ മോഡല് തന്നെയാണോ ചെയ്യുന്നത് ട്രഡീഷണൽ ഹൗസ് പോലേ

ഓക്കേ അപ്പോൾ അത്യാവശ്യം ആളൊക്കേ വരുന്നുണ്ടല്ലേ നമുക്കും അതിനെപ്പറ്റി കൂടുതൽ അറിവൊന്നൂല്ലാ എന്നാലും നോക്കീട്ട് ഞങ്ങളും കുറച്ച് ചെയ്യാനുള്ളൊരു പ്ലാനുണ്ടായിരുന്നു അപ്പോൾ അതാണ് നിന്നേ ഞാൻ ഒന്ന് വിളിച്ച് നോക്കിയത് ഓക്കേ ഓക്കേ നീ എന്നാൽ ഫ്രീയാവാന്ന് വെച്ചാൽ നമുക്കൊന്ന് കാണാൻ പറ്റോ ഓക്കേ ഓക്കേ ആയിക്കോട്ടേ എന്നാൽ ഞാൻ വരുമ്പോൾ നിന്നെ വിളിച്ചിട്ട് വരാം